ഹലോ മ്മ് അതേ ആ ഒന്ന് ഉണ്ട് സാറേ ഒന്ന് ഉണ്ട് സീറ്റിങ്ങൊക്കെ ഇവിടെ റിസർവേഷനുള്ളത് സീറ്റ് പ്രത്യേകം വേറെയുണ്ട് ഉണ്ട് ഉണ്ട് ആ കരിമീൻ പൊള്ളിച്ചത് പ്ലേറ്റിന് മുന്നൂറ് രൂപ റേറ്റ് കൂടുതല് സാർ ഇപ്പം കരിമീനൊന്നും ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾക്കെന്നല്ല ഇവിടിപ്പം ദുർലഭമായി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ലഭ്യതയൊന്നും ഇല്ല അപ്പം അത് കാരണം അതിന് ഷോർട്ടേജുണ്ട് അപ്പം അതനുസരിച്ച് ഞങ്ങൾക്കും ഞങ്ങൾക്ക് കിട്ടുന്നത് ആ വിലയ്ക്കാണ് അതിന് ഞങ്ങൾക്കൊന്നും ലാഭം കിട്ടാനായിട്ടില്ല സാറേ അതിനകത്ത് നിന്ന്

ആ അതേലോ കരിമീൻ ഫ്രൈ ഉണ്ട് വരാല് ഫ്രൈ ഉണ്ട് പിന്നെ വരാല് വരാലിന് ഇരുന്നൂറ് കരിമീനിന് നാന്നൂറ് ആ അത് മസാലയുടെയൊക്കെ മസാല കൂട്ട് അതിനും പൊള്ളിച്ചതിന് വരുമ്പഴത്തേക്ക് അതിനകത്ത് വേറെ മസാലകളൊക്കെ ചേരുന്നുണ്ട് കുരുമുളക് കുരുമുളകിനൊക്കെ ഭയങ്കര വിലയല്ലേ സാറേ ഇപ്പം ഞങ്ങള് ഫ്രഷായിട്ട് ചെയ്തുതരികയാണ് കരിമീൻ റെഡിയാണിവിടെ ആ നിങ്ങള് വന്ന് ആളെ കണ്ട ശേഷം ഞങ്ങള് പിടിക്കും ആ സമയത്തിന് റെഡിയാക്കി തരുന്നതായിരിക്കും മ്മ് ഞങ്ങൾക്ക് ഈ നിങ്ങൾ ഈ റിസർവേഷൻ സീറ്റ് റിസർവേഷൻ സീറ്റ് ഞങ്ങക്കെപ്പഴും ഞങ്ങള് സെപ്പറേറ്റ് വെച്ചിരിക്കുവാണ് അവിടെ മറ്റുള്ള ആൾക്കാരെ ഇരുത്താറില്ല അതുകാരണം അവിടെ നിങ്ങൾക്ക് എപ്പം വന്നാലും അവിടെ സീറ്റ് റെഡിയാണ് ആ ആ ഇപ്പം അല്ലെങ്കിൽ ആ ഇപ്പം ഇപ്പം ഇപ്പോൾ ഓൾറെഡി സീറ്റുണ്ട് ഇപ്പം അതുകൊണ്ട് ഇപ്പം ഓൾറെഡി സീറ്റുണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങളത് ബുക്ക് ചെയ്തിട്ടുണ്ട് ആ മ്മ് ഓക്കെ ഓക്കെ സാർ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ മ്മ് വേറെയും കൊഞ്ച് ഫ്രൈ ഉണ്ട് കൊഞ്ച് ഫ്രൈ ഉണ്ട് ആ കൊഞ്ച് മസാലയുണ്ട്

പാ പാൽ കപ്പ കിട്ടും പാൽകപ്പ കിട്ടും പിന്നെ കപ്പ കുഴച്ചതായിട്ട് വേണേൽ അങ്ങനെ കിട്ടും കപ്പയും മീൻ കറിയും സെപ്പറേറ്റ് ഉണ്ട് അ ആ മുളക് കറി മ്മ് മ്മ് മുളക് കറിയുണ്ട് തേങ്ങ അരച്ചുവച്ചതുണ്ട് ഇതിൽ ഏതാന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏതാന്ന് വെച്ചാൽ അപ്പോൾ ചെയ്യാം അ അ മതി മതി മതി നിങ്ങളുടെ സീറ്റ് ഓൾറെഡി ബുക്കിങ് ആയി ഓക്കെ അ അ അത് സാ സാറേ വന്നിട്ട് നമുക്ക് ഞാനത് കാൽക്കുലേറ്റ് ചെയ്തറിയിക്കാം

ആ ഓക്കെ ആ വിളിക്കാം വിളിക്കാം തിരിച്ചു വിളിക്കാം ഞാൻ ഓക്കെ ഓക്കെ ആ